കൃഷിക്കും അതുപോലെ തന്നെ മറ്റ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന ഒരു നാടല്ല എൻ്റെ നാട് എൻ്റെ നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായ അല്ലെങ്കില് പച്ചപ്പുകൾ നിറഞ്ഞ ഒരു അറിയപ്പെട്ട നാടാണ് എൻ്റെ നാട് പാലക്കാട് ഗ്രാമത്തിലെ അറിയപ്പെട്ട ഒരു വലിയൊരു നാടാണ് എൻ്റെ നാട് അതുകൊണ്ട് തന്നെ എൻ്റെ നാടിൻ്റെ ഈ കൃഷി ചെയ്യുന്ന ഭാഗത്തിൻ്റെ അരികിലൂടെത്തന്നെയാണ് സുന്ദരമായ നല്ല സുന്ദരിയായ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ യാതൊരു തരത്തിലുള്ള വെള്ളം ലഭിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഇതുവരെ നമ്മുടെ കൃഷി സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല അതിന് വേണ്ടിയുള്ള പല പദ്ധതികളും അല്ലെങ്കില് പല ആസൂത്രണങ്ങളും ചെയ്തിട്ടാണ് അവർ കൃഷിക്ക് വേണ്ടിയിറങ്ങുന്നത് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും സമൂഹത്തിലെ അല്ലെങ്കിൽ നാട്ടിലെ ചെറുപ്രായത്തിലുള്ള അല്ലെങ്കിൽ എന്തിന് ന്യൂ ജെന് പിള്ളാരുകൾ വരെ കൃഷിക്ക് അല്ലെങ്കില് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൃഷി ചെയ്യാൻ മുന്നോട്ടുവരികയും അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു വഴിവിളക്ക് തുറന്നുകൊണ്ട് പല രീതിയിൽ വെള്ളം സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കൃഷി അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നതും ഉപയോഗിക്കുന്നതും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതും ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പദ്ധതി വെള്ള പദ്ധതികൾ ധാരാളം നടക്കാൻ അല്ലെങ്കിൽ ധാരാളം കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായ നാടാണ് എൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടാണ് എൻ്റെ നാട് അയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവും ഇതുവരെ നേരിടേണ്ടിയല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതിനെക്കുറിച്ച് പ്രതിഷേധം അറിയിക്കേണ്ടതായിട്ട് വന്നിട്ടുമില്ല